ഓക്കെ ആ ഓക്കെ മോൾക്ക് ചിക്കൻബോക്സ് വന്നിട്ടാണ് ഉള്ളത് ഇപ്പം ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പം പത്ത് ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സുഖമാണ് ആ പത്ത് ദിവസത്ത ലീവിന് ആണ് പറഞ്ഞിട്ട് ഉള്ളത് അപ്പോൾ അത് അത് ഇവിടെ തലശ്ശേരി ഉള്ള ഡോക്ടറെ തന്നെയാണ് കാണിച്ചത് തലശ്ശേരി റോയൽ മലബാർ ഹോസ്പിറ്റലിലെ ഡോക്ടറെ ആണ് കാണിച്ചത് ആ പത്ത് ദിവസത്ത ലീവ് വേണമെന്ന് ആണ് പറഞ്ഞത് അത് പടരാൻ ചാൻസ് ആ ഓ ആ അല്ല അതെ മകൾക്ക് ഇപ്പോൾ എക്സാം നടന്ന് കൊണ്ട് ഇരിക്കുന്ന ഒരു സമയം ആണല്ലോ അപ്പം അവൾക്ക് എക്സാമിന് പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്

അവരുടെ അവർക്ക് ലീവിൻ്റെ ഷെൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആവശ്യം ആയിട്ട് വരുമോ ശരി ഓക്കെ ആ ആയിക്കോട്ടെ താങ്ക് യു നന്ദി നന്ദി